ഹലോ ആ എനിക്കൊരു പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഏതൊക്കെ ടൈപ്പ് കാർ ആണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു എസ് യു വി മോഡൽ ജീപ്പ് വേണമായിരുന്നു എസ് യു വി മോഡൽ ആ എർടിഗ ആണോ വരുന്നത് വരുന്നത് അത് പോര എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് വണ്ടി പോര എന്നാണ് പറയുന്നത് അങ്ങനെ വല്ലതും ഉണ്ടോ അടിപൊളി ആയിട്ടാണ് അല്ലേ ആണോ ആ ഹാ ഹാ യാത്ര ചെയ്യാൻ എങ്ങനെ ഉണ്ട് ഉണ്ടല്ലേ അ എത്ര റേറ്റ് അതിന് വരുന്നത് പതിനാറ് ലക്ഷം രൂപ അല്ലേ ആ അപ്പം നമ്മൾ ഇ എം ഐ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഡൗൺ പേയ്മെന്റ് എത്രയാണ് വേണ്ടത് ആ ലോൺ കിട്ടും അല്ലേ ആ ഓക്കെ ഓക്കെ അ ഓക്കെ ഓക്കെ ആ പിന്നെ വേറെ എന്തെങ്കിലും അതിനിപ്പം നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നാൽ മതി ആ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും

നാളെ വെ നാളെ നാളെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് മോളി കിട്ടും അല്ലേ അപ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ ആയിരിക്കുവോ അതോ നമ്പർ നിങ്ങൾ തന്നെ എങ്ങനെയാണ് ആ ഇല്ല ഫാൻസി നമ്പർ ഒന്നും വേണ്ട നമുക്ക് സാദാ ഒരു നമ്പർ മതി ആ അപ്പം അതിന് നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക നമ്പർ ടെമ്പററി നമ്പർ ആയിട്ട് നമുക്ക് ഡെലിവെറി ചെയ്ത് തരുവോ നിങ്ങൾ ചെയ്ത് തരും അല്ലേ ആ ബാക്കിയുള്ളത് അല്ലേ ഓക്കെ ഓക്കെ അ കളർ അവിടെ വന്ന് നോക്കിയാൽ മതിയായിരിക്കും അല്ലേ

ഓക്കെ അപ്പം നാളെ വന്നിട്ട് ഞാൻ എന്തായാലും വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ